നമ്മുടെ വീട്ടില് വളര്ത്തുന്ന കോഴികള്ക്കെന്തെങ്കിലും രോഗാവസ്ഥ നമ്മൾ കണ്ട് കഴിഞ്ഞാല് ഉടനെ തന്നെ നമ്മുടെ വെറ്റിനറി ഡോട്നെ സമീപിക്കുക അവിടെച്ചെന്ന് നമ്മുടെ കോഴികള്ടെളു വേ എന്ത് സംഭവിച്ചെന്ന് വിവരം പറയുക അതിനനുസരിച്ചുള്ള മരുന്നവർ തരുമ്പോള് നമ്മളത് അതിനനുസരിച്ച് അവര്ക്ക് പുരട്ടി കൊടുക്കേണ്ട ആണെങ്കില് പുരട്ടിക്കൊടുക്കണം ഇല്ലെങ്കില് നമ്മൾ ഭക്ഷണം സാധനത്തിനകത്ത് ചേര്ത്ത് ഇളക്കി കൊടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യണം രോഗം വരുന്ന കോഴിയെ കണാൻ ഓ നമ്മുടെ കണ്ടിട്ടുള്ള കോഴി രോഗമുള്ള കോഴികളെ മാറ്റി കിട മാറ്റി വേറൊരു കൂടിനകത്താക്കി താമസിപ്പിക്കാന് നോക്കണം അങ്ങനെ ചെയ്താൽ മറ്റുള്ള കോഴികള്ക്കും കൂടെ ആ രോഗം വരാതിരിക്കും രോഗം വരുന്ന വന്ന കോഴിയെ നമ്മൾ കൂടുതലായിട്ട് പരിപാലിച്ച് ഡോട്ട്രു തരുന്ന നല്ല മരുന്നുകൾ കറക്റ്റായിട്ട് കൊടുത്ത് ആ നിർദ്ദേശങ്ങള് പാലിച്ച് അവരെ അവയെ വളര്ത്തണം അവയെ വളര്ത്തണം അ